ഇപ്പോൾ നമ്മള് കൂടുതലായിട്ടും പണിയെടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമുക്ക് മെയിൻ ആയിട്ട് നല്ല രീതിയിലുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ക്യാഷ് കിട്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കാൻ വേണ്ടിട്ട് ഒക്കെയാണ് നമ്മള് നല്ല രീതിയിൽ പണിയെടുക്കുന്നത് അപ്പം പണിയെടുക്കുന്നത് അനുസരിച്ച് നമ്മൾ നല്ല രീതിയിലുള്ള ക്യാഷും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഉപയോഗം കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ലക്ഷ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വണ്ടി എടുക്കണം ഒരു ഫോൺ എടുക്കണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ടും എല്ലാവരുടെ ഉള്ളിലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിയില് പണിയെടുത്താ മാത്രമേ നമുക്ക് ഒരു ഫോണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പം പലരും ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോണും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഐഫോണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുക്കണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ജോലിയും കാര്യങ്ങളൊക്കെ വേണം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നരലക്ഷം രൂപയുടെ മുകളിൽ ഒക്കെ പൈസ വരുന്ന ഒരു ഫോണും കാര്യങ്ങളൊക്കെ ആണ് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളു അപ്പോൾ നല്ല രീതിയില് അതിന് വേണ്ടീട്ട് വ്യക്തിഗത ലക്ഷ്യങ്ങൾ ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനത്തെ ഒരു ഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിട്ട് സാധിക്കുള്ളൂ അത് നമ്മുടെ മെയിൻ ആയിട്ട് നോക്കണ്ട കാര്യമാണ്